ഹലോ കെ എസ് ഇ ബി അല്ലേ ആ ഞാൻ ബില്ലടക്കാൻ വേണ്ടിയിട്ടായിരുന്നു വൈദ്യുതിൻ്റെ ആ അപ്പം എൻ്റെ ആ കൺസ്യൂമർ നമ്പർ പൂജ്യം പൂജ്യം രണ്ട് എട്ട് ആണ് ആ അത് തന്നെ ആ മേഖ ആ അതെ ആ എൻ്റെ വൈദ്യുതി ബോഡിൻ്റെ ആ ഉപഭോക്തൃ സേവനത്തിന് ആ അതിൽ വിളിച്ചതാണ് ആ നിലവിലുള്ള വൈദ്യുതിൻ്റെ നിരക്ക് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഓൾമോസ്റ്റ് അതിനകത്ത് പന്ത്രണ്ടോ പതിനഞ്ചോ രൂപ എങ്ങാണ്ട് കഴിഞ്ഞ പ്രവ്ശ്യത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കൂട്ടിയിട്ട് ഈ പ്രാവശ്യത്തെ കിഴിവും എല്ലാം കൂടെ കൂട്ടിയിട്ട് എത്രയാണ് ഒന്നു പറയാമോ ആ അതെ ആ പ്രമോഷനും കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു പ്രമോഷനും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ ആ അതേപോലെ തന്നെ ആ എന്താണ് പറയുക ലഭ്യമായ കിഴിവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അതുണ്ടോ ഇല്ലാല്ലേ ആ ഓക്കെ ആ ആ അറുനൂറ്റി അമ്പത് രൂപ ആ ഓക്കെ ഓൺലൈൻ ആയിട്ട് പേയ്മെൻ ചെയ്താൽ മതിയോ അത് വന്നിട്ട് ചെയ്താൽ മതിയോ ആ ഓക്കെ ശരി താങ്ക് യു